ഒരു ബൈക്കോടിക്കുമ്പോൾ നമുക്കൊരുപാട് വികാരങ്ങൾ മനസ്സിലേക്കുവരും ഒന്ന് നമ്മുടെ മുന്നിലേതെങ്കിലും ഒരുത്തന് കയറി പോവുകയാണെങ്കിൽ അവനെ തോൽപ്പിക്കണം രണ്ട് മറ്റുള്ളവരെ നമ്മുടെ സ്പീഡായിക്കോട്ടെ എല്ലാം കാണിക്കണം അത് നമ്മുടെ മെയിനൊരു മലയാളികളുടെയൊരു പ്രശ്നമാണ് ഭയങ്കര സ്പീഡിൽ പോവുക ആക്സിഡൻ്റുണ്ടാവുന്നത് തന്നെ ഇതുപോലെ ഈ സ്പീഡിൽ പോകുന്നതുകാരണം മൂലമാണ് ബൈക്ക് നമ്മളോടിക്കുമ്പോൾ എന്തായാലും നല്ല രീതിയിൽ ഓടിക്കാൻ ശ്രമിക്കുക പരമാധി സ്പീഡ് കുറച്ച് ഓടിക്കുന്നതാണ് ഏറ്റവും നല്ലത് നമ്മുടെ മനസ്സിലേക്കിങ്ങനെ തോന്നിയാൽ നല്ല സ്പീഡിൽ പോവാം നമ്മുടെ മുന്നേ പോയവനെ തോൽപ്പിക്കാം അവനെ തോപ്പിച്ച് അവനെ തോൽപ്പിച്ച് മുന്നിൽ കയറിയിട്ടോ കാര്യമൊന്നുമില്ല നമുക്കെവിടേയും അങ്ങനെ പെട്ടെന്ന് എത്താനില്ലല്ലോ ഇനിയിപ്പോൾ സമയം പോയി ഇന്ന സ്ഥലത്ത് പെട്ടെന്നെത്തണം എന്നൊരാൾ വിളിച്ചു പറഞ്ഞു ഇന്ന സമയത്തിനുള്ളിൽ വരണം എന്നു പറയുകയാണെങ്കിൽ നമ്മൾ സ്പീഡിൽ പോകണം അതും നോക്കിയും കണ്ടും ശ്രദ്ധിച്ചു തന്നെയാണ് പോവേണ്ടത് നമ്മുടെ മനസ്സിൽ ഒരുപാട് വികാരങ്ങൾ വരും വണ്ടി ഓടിക്കുമ്പം എന്തൊക്കെ ചെയ്യാം മെയിനായിട്ട് നമ്മൾ ഹെൽമെറ്റൊക്കെ യൂസ് ചെയ്യണം സ്പീഡ് വേണം വേണ്ടയെന്നല്ല ആവശ്യത്തിനുള്ള സ്പീഡിലേ പോകാവുള്ളൂ വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ നല്ല രീതിയിൽത്തന്നെ ഓടിക്കണം കാരണം ഒരുപാട് ഏക്സിഡന്റ് കൂടിവരുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ നന്നായി ഓടിച്ചെന്നു പറഞ്ഞിട്ട് കാര്യം ഇല്ല നമ്മുടെ എതിരെ വരുന്നവനെങ്ങനെയാണ് വരുന്നതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല നമ്മുടെ കഷ്ടം പോലെയിരിക്കും അപ്പം ബൈക്കിനോടൊക്കെ ഓടിക്കാനും എല്ലാത്തിനും നമുക്കൊരുപാട് പാഷനുണ്ടാവും പക്ഷേ നമ്മളോടിക്കുന്നത് സ്പീഡ് കുറച്ചും നമ്മുടേതായ രീതിയിലേ ഓടിക്കാവുള്ളൂ